പൊതുഗതാഗതത്തിൻ്റെ കുറവ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയും ഞങ്ങളുടെ നാട്ടിൽ പൊതുഗതാഗതത്തിൻ്റെ കുറവ് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം ഞങ്ങൾക്കിപ്പോൾ ഒരു എനിക്കിപ്പോൾ ട്രെ ട്രെയിൻ കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ അവിടെ നിലമ്പൂർ പോകണം ഞങ്ങളൊ ഞാനൊരു മഞ്ചേരിക്കാരനാ നിലമ്പൂർ പോകണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോഴിക്കോടോ തിരൂരോ പോകണം ട്രെയിൻ ട്രെയിൻ ഗതാഗതം ഞങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളൊരു പുറത്തേക്ക് ട്രെയിൻ പോകുന്നെങ്കിൽ കെ എസ് ആർ ടി സിയുടെ അവസ്ഥ അതു തന്നെയാണ് കെ എസ് ആർ ടി സി ഞങ്ങൾക്ക് മഞ്ചേരി അതും സർവീസൊക്കെ ദുർലഭമായിട്ടേ നമുക്കുള്ളൂ അപ്പോൾ ഈയൊരു ഇതിൻ്റെ കുറവ് നല്ലവണ്ണം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ നമുക്ക് റോഡിൻ്റെ അവസ്ഥ നമ്മൾ നമ്മൾ പിന്നെ മഞ്ചേരി റ്റു അല്ലെങ്കിൽ നമ്മൾ പയ്യനാട് പ്രദേശത്തേക്കു ആദ്യം വളരെ ഇടുങ്ങിയ ഒരു റോഡായിരുന്നു ഉണ്ടായിരുന്നത് അന്നൊക്കെ എത്ര കുറേ മണിക്കൂറുകൾ പിന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ആ അവസ്ഥയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് റോഡിൻ്റെ മോശം അവസ്ഥയൊക്കെ റോഡിൻറ്റെ മോശം അവസ്ഥ ഇപ്പോൾ അത്ര അനുഭവിക്കുന്നില്ലെങ്കിലും ഈ ഒരു പൊതുഗതാഗതം ഭയങ്കര ഞങ്ങൾക്ക് അനുഭവിക്കാൻ കിട്ടാത്തൊരു സംഭവമാണ്